ആ ആ അതെ അതെ

ആ വീട് വയ്ക്കാനാണോ വീട് വയ്ക്കാനാണെന്ന് ഉണ്ടെങ്കിൽ ഒരു സ്പോട്ട് സെറ്റാണ് മറ്റെ രണ്ട് സ്ഥലത്ത് വീട് വയ്ക്കുന്ന സ്ഥലമല്ല അത് നമ്മൾ ഇങ്ങനെ കൈമാറി കൈമാറി പോരുന്ന സ്ഥലമാണ് അപ്പോൾ വീട് വയ്ക്കാനുള്ള സ്ഥലം ആണല്ലേ ഓ അങ്ങനെ അപ്പോൾ ഒരു കുറച്ചൊക്കെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം ഒക്കെയുള്ള സ്ഥലം ആണല്ലേ ആ ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്ഥലത്ത് നമ്മളുടെ ഒരു ചെറിയൊരു കുളം ഉണ്ട് അതിന് അടുത്ത് പക്ഷെ നനയ്ക്കാനൊന്നും പറ്റില്ല എന്നാലും ഒരു കിണർ കുഴിക്കാൻ ആണെന്ന് ഉണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ അതിന് അത് മാച്ച് ആകുമെന്ന് തോന്നുകയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഇത് പരപ്പനങ്ങാടി ഒരു കുറച്ച് ഉള്ളിൽ കളക്കാവ് എന്ന സ്ഥലത്താണ് പരപ്പനങ്ങാടി കുറച്ച് ഉള്ളിൽ ആ അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കു സ്ഥലം അതൊരു അര ഏക്കർ വരികയുള്ളൂ പിന്നെ ഒരു ഒരു രണ്ട് സ്ലോട്ട് ഉണ്ട് സ്പോട്ട് ഉണ്ട് അവിടെത്തന്നെ അഥവാ ഒരു സ്പോട്ട് നമ്മൾ കൊടുക്കുന്നില്ല നിങ്ങൾ ഇനി നിർബന്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾ തരാം

ഓക്കെ ഏതായാലും നിങ്ങൾ ഒന്ന് വന്ന് നോക്കിക്കേ എന്നിട്ട് നിങ്ങളുടെ സാഹചര്യമനുസരിച്ച് ഓക്കെയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ക്ലൈമറ്റ് ആണോ ഇവിടെ കാലാവസ്ഥ ഒക്കെ നോക്കുമ്പോൾ നല്ല നല്ല സ്ഥലമാണ് കാരണം അത്യാവശ്യം മരങ്ങളുണ്ട് അതുപോലെ തന്നെ തണലുള്ള സ്ഥലമാണ് പിന്നെ വെള്ളം ഉള്ള സ്ഥലമാണ്

ആ ആ ഓക്കെ ശരി എന്നാൽ